നന്ദിയോട് ശ്രീ ശാരദാദേവി ടീച്ചറുടെ കീഴിലാണ് ഞാൻ രണ്ട് വർഷത്തോളം നൃത്തം അഭ്യസിച്ചത് ഏകദേശം രണ്ടായിരത്തി ഒന്ന് വരെ ഞാൻ നൃത്തം പഠിക്കാൻ പോയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടം മുതൽ രണ്ടായിരത്തി ഒന്ന് വരെയാണ് ഞാൻ നൃത്തം പഠിച്ചിട്ടുള്ളത് അല്ലാതെ ഞാൻ സ്വന്തമായിട്ട് നൃത്തം സംവിധാനം ചെയ്യുകയോ അങ്ങനെ ഉള്ള ഒരു പ്രവർത്തിയിലേക്ക് വന്നിട്ടില്ല പക്ഷേ നൃത്തത്തെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് അറിയാവുന്ന കുട്ടികളെയും എൻ്റെ മക്കളെയും ഒക്കെ തന്നെയും നൃത്തം അഭ്യസിപ്പിക്കുന്ന പ്രക്രിയയിലേക്ക് കൊണ്ട് വന്നിട്ടുണ്ട് നൃത്തം വളരെയധികം ആരോഗ്യദായകമാണ് നമുക്ക് മനസികപരമായിട്ടും ശാരീരികപരമായിട്ടും നൃത്തം കൊണ്ട് വളരെയധികം ഉപയോഗം നമ്മളിൽ ഉണ്ടാക്കും അതിന് യാതൊരു സംശയോം ഇല്ല നൃത്തം നമുക്ക് ഒരു മടിയും കൂടാതെ കുഞ്ഞുങ്ങൾക്ക് ഒരു കലയായിട്ടോ അല്ലെങ്കിൽ ഒരു കായിക അഭ്യാസമായിട്ടോ നമുക്ക് അഭ്യസിപ്പിക്കാവുന്ന ഒരു കലാരൂപം തന്നെയാണ്